പ്രകൃതിയെ സമൂഹത്തയൊക്കെക്കുറിച്ച് എഴുതാൻ നമുക്കു കൂടുതൽ ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ ആശയങ്ങൾ കണ്ടെത്താറു പ്രകൃതിയെ സംബന്ധിച്ച് എഴുതുമ്പോൾ അങ്ങനെ സമൂഹത്തെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്കു കൂടുതലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അപ്പോള് കൂടുതൽ ആശയങ്ങൾ കണ്ടെത്തും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യകൾ അതുപോലെ തന്ത്രങ്ങളൊക്കെ എന്താണെന്നുവച്ചാല് എല്ലാവരുടെയും മനസ്സിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എഴുതുക അതുപോലെ നല്ല നല്ല എഴുത്തുകൾ വായിക്കാൻ കഴിയുന്ന എഴുത്തുകൾ എഴുതുക അങ്ങനെയൊക്കെയാണു നമ്മൾ അങ്ങനെയക്കെയാണു നമ്മള് എഴുതുക നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി കൂടുതൽ എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും അതുപോലെ നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുക മറ്റുള്ളവര് എഴുതിയ നമ്മൾ എഴുതിയത് അവർ വായിച്ച് അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്കു കൂടുതൽ നല്ല നല്ല വാക്കുകളെഴുതാനും എല്ലാവരുടെയും മനസ്സിൽ കയറിപ്പറ്റാനും ആ എഴുത്തുകൾ നമുക്കു മധുരം കൊണ്ടുവരാനൊക്കെ നമുക്കു കഴിയും പിന്നെ നല്ല നല്ല ചിത്രങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക ചിത്രങ്ങൾക്കിടയിൽ അ അതുപോലെ പ്രകൃതിയെക്കുറിച്ച് അങ്ങനെയൊക്കെ നല്ല നല്ല രീതിയിലുള്ള എഴുത്തുകൾ എഴുതുമ്പോൾ നമുക്കു കൂടുതൽ സന്തോഷവും അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അതുപോലെ നമുക്കു കൂടുതൽ സന്തോഷവും അതുപോലെ അതു വായിക്കുന്നവർക്കും സന്തോഷമുണ്ടാകണം അതായിരിക്കും ഓരോ എഴുത്തുക്കാരുടെയും മനസ്സിലുണ്ടാവുക എഴുതുന്നവർക്കും വായിക്കുന്നവർക്കും അതു മധുരമാകണം അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓരോ എഴുത്തുകൾ ആ എഴുത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടാവരുത് അവർക്കിഷ്ടപ്പെടുന്ന ഒരു കാര്യമേ ഉണ്ടാവാന് പറ്റു അതുപോലെ പിന്നെ നമ്മൾ കൂടുതൽ യാത്ര ചെയ്ത് അവിടെ എന്തൊക്കെ കണ്ടു അങ്ങനെയുണ്ട് അതുപോലെ നമ്മുടെ നമ്മൾ ഒരുപാട് ഒട്ടനവധി സാധനങ്ങളും ഒരുപാട് കാഴ്ചകളും നമ്മളെ ഭൂമിയിൽ തന്നെയുണ്ട് അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോള് അതൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിലിറങ്ങി നമ്മൾ അതിനെക്കുറിച്ചു കണ്ടെത്തി എഴുതി അതുപോലെ കൂടുതൽ യാത്രകൾ ചെയ്ത് എഴുതി എഴുതുമ്പോൾ അതിനൊക്കെ ഉണ്ടാകുന്ന മധുരമാണ് ഈ എഴുത്തുകാരെയെല്ലാം പ്രചോദിപ്പിക്കുന്നത് അതുപോലെ അതു വായിക്കുന്നവരുടെ മനസ്സിലുള്ള സന്തോഷമാണ് ആ എഴുത്തുകാരുടെ സന്തോഷം അതൊക്കെയാണ് ആ ഓരോ എഴുത്തുകാർക്കും വേണ്ടത് അതൊക്കെയാണ് ഓരോ ഓരോരുത്തരും നമ്മളുടെ നമ്മളുടെ വികാരങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ സന്തോഷമുള്ളതുകൊണ്ട് അതൊക്കെ കാണുമ്പോഴാണ്